ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് നമ്മൾ ജീവിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ജീവിക്കുമ്പോൾ കാലം അതിനനുസരിച്ച് മാറി എന്നുള്ളതാണ് അർത്ഥം ഒരുപാടൊരുപാട് മാറ്റങ്ങൾ നമ്മുടെ ഈ ഈ കാലഘട്ടത്തിൽ സംഭവിച്ചിട്ടുണ്ട് ആളുകൾ മാറി ആളുകളുടെ ചിന്തകൾ മാറി ആളുടെ അവസ്ഥകൾ മാറി അങ്ങനെ ഒരുപാട് ഒരുപാട് വ്യത്യാസങ്ങൾ പണ്ടത്തെ ജീവിതത്തിൽ നിന്നും ഇപ്പോൾ ഇപ്പോഴത്തെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ മാറിയിട്ടുണ്ട് അതിൽ ഒരുപാട് ഒരുപാട് വ്യത്യാസങ്ങൾ എന്ന് പറയുമ്പോൾ പണ്ടത്തെ ആളുകൾ ജീവിച്ചിരുന്ന സ്റ്റൈലിൽ ആയിരിക്കുക ഇല്ല ഇപ്പം ജീവിക്കുന്നത് പണ്ടത്തെ ആളുകൾക്ക് ഒരുപക്ഷെ വീടുകൾ പോലും നല്ലത് ഉണ്ടായിക്കൊള്ളണം എന്നില്ല അത് അല്ലെങ്കിൽ ഉള്ള വീടുകൾ തന്നെ ചിലപ്പോൾ ഓല മേഞ്ഞ വീടുകൾ അത് അല്ലെങ്കിൽ വെറും മണ്ണ് കൊണ്ട് തേച്ച് മിനുക്കി ഉണ്ടാക്കിയ വീടുകൾ അത്ര മാത്രമായിരിക്കും വളരെ ദാരിദ്ര്യം തോന്നും സത്യം പറഞ്ഞാൽ അന്നത്തെ പണക്കാർ പോലും ഇന്നത്തെ പാവപ്പെട്ട ആളുകൾ ജീവിക്കുന്നത് പോലെയായിരിക്കും ജീവിച്ചിട്ടുണ്ടാവുക അപ്പോൾ ഇന്നത്തെ കാലത്ത് പണ്ടത്തെ കാലത്ത് നിന്ന് മാറി ചിന്തിക്കുമ്പോൾ ആളുകളുടെ ചിന്തകളൊക്കെ മാറി കഴിഞ്ഞു ഒരുപാട് ഒരുപാട് വ്യത്യസ്തങ്ങളായ ജീവിത രീതികൾ ഉള്ള മനുഷ്യന്മാരാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഒരുപാട് ഒരുപാട് ചെറുപ്പക്കാർ അവരുടെ ചിന്തകളും കാര്യങ്ങളും

ബൈക്ക് എന്ന് പറയുമ്പോൾ ബൈക്കിന് പല പല പല ഇനങ്ങൾ ഉണ്ട് ഒരുപാട് ഒരുപാട് ഇനങ്ങൾ ഉണ്ട് ബൈക്കുകൾ പണ്ട് ഇറങ്ങിയ മോഡൽ തന്നെ അപ്ഡേറ്റ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത് കൊണ്ട് പല പല ഇനങ്ങളാക്കിയിട്ട് പല മോഡൽസായിട്ട് രണ്ടായിരത്തി പത്ത് മോഡൽ പന്ത്രണ്ട് മോഡൽ പതിമൂന്ന് മോഡൽ പതിനാല് മോഡൽ അങ്ങനെ പല പല മോഡലുകളായിട്ട് ഇന്നും ബൈക്കിൻ്റെ പല പല ഇനങ്ങൾ ഇറങ്ങിക്കൊണ്ടു ഇരിക്കുകയാണ് ഫോണുകൾ വരെ ഇറങ്ങുന്നത് പോലെ ഈ ആളുകൾക്കുള്ള ഒരു പാഷൻ പലർക്കും ഉള്ള ഒരു പാഷനാണ് ഒരു ഭ്രാന്ത് എന്ന് വേണമെങ്കിൽ പറയാം ബൈക്കിങ് എന്ന് പറയുമ്പോൾ അതിൽ ഇരുന്ന് കൊണ്ട് അതിൻ്റെ അതിൻ്റെ സ്പീഡിൽ അങ്ങ് ഫുൾ എനർജിയിൽ ആയിട്ട് അവർ അങ്ങ് ഓടിക്കുമ്പോൾ എല്ലാം ഒരു പക്ഷേ അവർക്ക് മറക്കാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്നത് പോലെയാണ് അവർക്ക് ഏറ്റവും വലിയ സന്തോഷമായിരിക്കും ഈ ബൈക്കിങ് എന്ന് പറയുമ്പോൾ മറ്റ് ഒന്നിനെ കുറിച്ചും ആലോചിക്കാതെ ഈ ഒരുപാട് വാഹനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും എന്തെങ്കിലും ആക്സിഡന്റ് പറ്റുമോ എന്ന് പോലും അവർ ചിന്തിക്കുകയില്ല മറിച്ച് ആ ബൈക്ക് എടുത്ത് കൊണ്ട് അങ്ങനെ ഫുൾ സ്പീഡിൽ ഒന്നും നോക്കാതെ യാതൊന്നിനെക്കുറിച്ചും ചിന്തിക്കാതെ അവർ നേരെ ആ ബൈക്ക് എടുത്ത് കൊണ്ട് പോവുകയാണ് അത് ഇന്നത്തെ തലമുറയ്ക്ക് സത്യം പറഞ്ഞാൽ അത് അവരുടെ ഉള്ളിലൊരു ഹരമാണ് ഒരു ലഹരിയാണ് അവർക്ക് അത് യാതൊരു വിധത്തിലും അവരെ തകർക്കാൻ കഴിയില്ല കാരണം അത് അവരുടെ ഉള്ളിൽ കൊണ്ടിട്ടുള്ള ഇതാകുന്ന ഒരു പാഷനാണ് അവർക്ക് ബൈക്കിങ് എന്ന് പറയുമ്പോൾ അത്രയും വലിയ ജീവനാണെന്നാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ബൈക്ക് ഓടിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന അനുഭവങ്ങൾ ചില വികാരങ്ങൾ എന്തൊക്കെ അത് ഭയങ്കര ഒരു എനർജിയൊക്കെ തോന്നുന്നതായിരിക്കും